അതെ അവർക്ക് മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളിലേക്ക് പോവുമ്പോൾ കുറേ വെല്ലുവിളികൾ ഒക്കെ നേരിടേണ്ടി വരും അവിടുത്തെ ഭാഷ അവിടുത്തെ ഭക്ഷണം അത് പോലെ തന്നെ പോവുന്ന രീതിക്കിപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് ചിലപ്പോൾ ബസ്സ് അവൈലബിളായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങള് ചിലപ്പോൾ അവരുടെ നേരിടേണ്ടി വരും പിന്നെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അവര്ക്ക് കുറേ കാര്യങ്ങള് നേരിടേണ്ടി വരും വീട്ടില് നിന്നും മാറിനിൽക്കുമ്പോഴുള്ള ഒരു പ്രയാസം അവര്ക്കതില് ഉണ്ടാവും അതുപോലെത്തന്നെ അവിടെ നമ്മുടെ വീട്ടിൽനിന്നു എന്തൊക്കെയാണോ പഠിച്ചത് അതൊന്നും അതായിരിക്കില്ല അവിടെ അവിടെ പഠിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാരണം പല സ്ഥലത്തു നിന്നു വരുന്ന പിള്ളേരായിരിക്കും അവിടെ ഉണ്ടാവുക കുറേ ക്യാരക്റ്റര്സ് നമ്മളവിടെ പഠിക്കും കുറേ രീതികൾ ലൈഫിൽ കുറേ രീതികൾ നമ്മളവടെ കാണും പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ പാർട്ട് ആക്കാന് പാടില്ലാ നല്ലത് മാത്രം തെരഞ്ഞെടുക്കുക നല്ലത് മാത്രം പഠിക്കുക